എന്റെ നാട്ടിലെ മറ്റുള്ള എന്താ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കലാരൂപങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കതിനേപ്പറ്റി വലിയ അറിവില്ല കാരണം ബാക്കിയുള്ള നാടുകളിലുള്ളപോലെ തന്നെ ഇപ്പോൾ പെയിൻ്റിങ്ങ്സാണെങ്കിലും ഇപ്പോൾ ശില്പത്തിന്റെ കാര്യത്തിലും പിന്നെ ശില്പമൊക്കെ എടുത്തുനോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്താണ് തനത് കലാരൂപങ്ങളൊക്കെ ഉണ്ടല്ലൊ ഇപ്പോൾ കഥകളി മോഹിനിയാട്ടം അങ്ങനെയുള്ള കുറച്ച് കലാരൂപങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശില്പങ്ങളും കാര്യങ്ങളും ഇപ്പോൾ കാനായി കുഞ്ഞിരാമൻ ചെയ്തിരിക്കുന്ന മലമ്പുഴയിലെ യക്ഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ മാത്രം സ്പെഷ്യലായിട്ടുള്ളതാണ് പിന്നെയെന്താണ് നമ്മുടെ ഡ്രെസ്സിങ്ങിന്റെ രീതി തുണിത്തരങ്ങളൊക്കെ ആണെങ്കിലും കസവ് എന്നുള്ള ആ ഒരൂ കോൺസെപ്റ്റൊക്കെ നമ്മുടെ നാട്ടിൽത്തന്നെയുള്ളതാണ് പിന്നെ മൺപാത്രങ്ങൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കറിച്ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ പ്രധാനപ്പെട്ട അങ്ങനെയെനിക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ